ഞാനൊരു എന്താണ് ഒരു കംപ്യൂട്ടർ സെൻ്ററിലാണ് വർക്ക് ചെയ്തത് അപ്പം അവിടെ എല്ലമ്മ് എടുക്കും ഫോട്ടോസ്റ്റാറ്റ് എടുക്കും അക്ഷയ പോലെ തന്നെയാണ് എല്ലാ സംഭവങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നല്ല തിരക്കാണ് എപ്പോഴും നല്ല തിരക്കായിരിക്കും തിരക്ക് വന്നു കൊണ്ടേയിരിക്കും ഏത് ടൈമും തിരക്ക് വന്നു കൊണ്ടേയിരിക്കും അപ്പോൾ അന്ന് ബുക്ക് ഒരു ബുക്ക് പ്രിന്റ് എടുത്ത് സ്പൈറൽ ഉണ്ടായിരുന്നു പ്രിന്റ് ഞങ്ങളെടുത്തതല്ല അ അവർ എടുത്തിട്ട് വന്നതാണ് അപ്പം സ്പൈറൽ ഉണ്ടായിരുന്നു ഞാനത് തിരിച്ചും മറിച്ചും നോക്കാൻ മറന്ന് പോയി ഇങ്ങനെ നേരെ കണ്ടപ്പോൾ ഇതാണ് ഫ്രണ്ട് ഭാഗമെന്നു പറഞ്ഞ് ഈ സൈഡിലെല്ലാം ഇട്ട് കഴിഞ്ഞ് സ്പ്രിങ്ങ് പാതി ഇട്ട് കഴിയുമ്പോളാണ് ഇത് ബേക്കാണെന്ന് അറിയണെ ഇങ്ങട് തിരിക്കണ ഈ ഭാഗമാണ് സ്പ്രിങ്ങ് ഇടേണ്ടത് അപ്പം തന്നെ എനിക്ക് ടെൻഷനായി എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പം തന്നെ അവിടെ വലിയൊരു ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ചേച്ചി ഇങ്ങനെയാണ് എന്നു പറഞ്ഞു അപ്പോഴേ സാറ് അവിടെ നിൽക്കണുണ്ടായിരുന്നു അപ്പം ആ സാറിൻ്റെ അടുത്ത് ഞാൻ പറയുമ്പോൾ നല്ല ടെൻഷൻ ആയിരുന്നു ഞങ്ങളുടെ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അത് സാറ് ബിസി ആയിരുന്നത് കൊണ്ട് ഈ കൊണ്ടു തന്ന സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ കുഴപ്പമില്ല ആർക്കായാലും അബദ്ധം പറ്റുമല്ലോ അത് ചുമ്മാ ഒരു റെഫറൻസാണ് നീ ഈ സൈഡ് ഹോൾ ഇട്ട് താ പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ആശ്വാസായാത് എന്നാലും മനസ്സിൽ നിന്നാ ഒരു ടെൻഷൻ പോയില്ല അപ്പം ഇനിയും അവർ ഇവിടെ വരാണ്ടിരിക്കുമോ ഈ കടയ്ക്ക് ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരായില്ലേ അങ്ങനെ ഒരു തോന്നൽ വന്നത് കൊണ്ട് ഞങ്ങളുടെ സാറ് അറിഞ്ഞില്ല എന്നാലും നമുക്ക് ആ ഒരു ചീത്തപ്പേര് വന്നതിങ്ങനെയാണ് സ്റ്റാഫിനെ വെച്ചിരിക്കണത് ഒരു എന്താണ് ഒരിതില്ലാണ്ട് സീരിയസ്നെസ്സ് ഇല്ലാണ്ട് ചെയ്യണവരാണോ എന്നൊക്കെ വിചാരിക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ച് നല്ല ടെൻഷനായിരുന്നു അത് കഴിഞ്ഞ് ഈ സൈഡ് ഞാൻ ഈ സൈഡിൽ ചെയ്ത് ഞാൻ കൊടുക്കും ചെയ്തു കൊടുക്കുകയും ചെയ്തവർ ശ്ശേ അതിന് കുഴപ്പമൊന്നുമില്ലാ എന്താണ് താങ്ക് യൂ ഇങ്ങനെ ചെയ്തതിന് ഇനി ഇങ്ങനെ ചെയ്യാണ്ടിരുന്നാൽ മതി ഇത് പ്രത്യേകിച്ച് ഇംപോർട്ടന്റ് ഒന്നും ഇല്ലാത്ത ബുക്കാണ് അങ്ങനെയൊക്കെ പറഞ്ഞു എന്നാലും ഞാൻ കുറേ പ്രാവശ്യം അവരുടെ അടുത്ത് സോറിയൊല്ലാം പറഞ്ഞു അന്ന് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ എനിക്ക് ഞങ്ങളുടെ കടയിലെ സാറിൻ്റെ അടുത്ത് പറയാണ്ടിരിക്കാനും കഴിഞ്ഞു ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും ഞാനന്നേരം ഫുഡേ കഴിച്ചില്ല ആ ടെൻഷൻ കൊണ്ട് ഇങ്ങനെ നമ്മൾ തെറ്റ് ചെയ്തില്ലേ എന്നൊരു ടെൻഷൻ കൊണ്ട് അതുകഴിഞ്ഞ് ഉച്ചക്ക് വന്നപ്പോൾ ആരുമുണ്ടായിരുന്നില്ല എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി ഞാൻ വന്ന ടൈം അപ്പം ഞാനതങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഞാൻ ചെയ്തുവെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല സെറീനാ അങ്ങനെ പറഞ്ഞു ആ സാർ കുഴപ്പമില്ല നീ അപ്പം തന്നെ നമ്മുടെ ഇവിടെ തന്നെ സെറോക്സ എടുത്തിട്ട് കൊടുക്കാമായിരുന്നില്ലേ പ്രിന്റ് ചെയ്ത് അങ്ങനെയെന്ന് പറഞ്ഞു അപ്പോഴാണെനിക്ക് ഒരാശ്വാസമായത് ഞാൻ പക്ഷെ തെറ്റ് ചെയ്തത് ഞാനത് തിരുത്തുകയും അങ്ങനെ ചെയ്ത് കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ സാറിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു അതെനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു എൻ്റെ ജോലി സ്ഥലത്ത് വെച്ച് ഇങ്ങനെ നടന്നത് ആ സാറിന് കുറച്ച് നല്ല മനസ്സ് ആയതു കൊണ്ട് ആ തെറ്റവർ ക്ഷമിച്ചത് അല്ലെങ്കിൽ ആ സാ ഇപ്പോൾ വേറെ വല്ലവരും ആണെങ്കിൽ ആ ഭയങ്കര പ്രശ്നമുണ്ടാക്കി ഞങ്ങളുടെ കടയിലെ സാർ പറഞ്ഞു അവർക്കും നാണക്കേടായി എല്ലാരുടെ മുന്നിൽ എനിക്കും ചീത്തകൊണ്ട് ആ സാറിനും നാണക്കേടായി അങ്ങനെ വന്നേനെ പക്ഷെ ആ സാർ വന്ന ആ കസ്റ്റമർ സാർ നല്ല ഒരു ആളായതു കൊണ്ട് അന്നൊന്നും പറയേം ചെയ്തില്ല അവർ എനിക്ക് സപ്പോർട്ടായി പറയേം ചെയ്തു കുഴപ്പമില്ല ആർക്കായാലും അബദ്ധം പറ്റും അങ്ങനൊരിത് അങ്ങനെ എനിക്ക് ഒരു മോ മോശപ്പെട്ട അനുഭവമാണ് പക്ഷെ അതിലൂടെ ഒരു നല്ല അനുഭാവമുണ്ടായി അങ്ങനെ അതെനിക്ക് എൻ്റെ ജീവിതത്തിലെ മറക്കാൻ ആദ്യമേ ഞാൻ വർക്ക് ചെയ്യാൻ പോയതാണ് അവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടായത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരനുഭവമായിരുന്നു ഞാൻ ഒരിക്കലും മറക്കില്ല